ഞാനെൻ്റെ കുടുംബത്തിനോടൊപ്പം ഒരു ഭക്ഷണശാലയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അ അവിടേക്ക് എന്താ പോകുന്ന വഴി ഇൽ നാട്ടിലെ ഏറ്റോം ഇൻട്രസ്റ്റിങ്ങായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്ന ഫ ഭക്ഷണശാല എവിടെയാണ് അതുപോലെ അ അതിൻ്റെ സമയം അത് തുറന്ന് പ്രവർത്തിക്കുന്ന സമയം അതിൻ്റെ അടയ്ക്കുന്ന സമയം എപ്പഴാണെന്ന് അറിഞ്ഞാൽ നല്ലതായിരുന്നു അതുപോലെ അവിടെ എത്ര മേശകളുണ്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളൊരു പത്ത് പതിനഞ്ചോളാം ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം ഇരിക്കാവുന്ന സൗകര്യമുള്ള റെസ്റ്റോറൻറ്റാണോ അത് എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ പത്ത് പതിനഞ്ച് പേരുണ്ടായത് കൊണ്ട് തന്നെ മുന്നോ നാലോ കാറുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കും ഈ കാറുകളെല്ലാം സൗകര്യപ്രദമായിട്ട് സുരക്ഷിതത്തോടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ റെസ്റ്റോറൻറ്റിൽ ഉണ്ടോ എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്